എനിക്ക് രണ്ട് മാസത്തെ കൂടി അവധിയുള്ളു ഇതുവരെ എനിക്ക് പാസ്പോർട്ട് ലഭിച്ചിട്ടില്ല ഞാൻ കൊടുത്തിട്ട് അഞ്ചാറ് മാസമായി ഒരു ഇതും രേഖകള് ഒന്നുമായിട്ടെന്നെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല എന്താണെന്നറിയില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് കയ്യിൽ കിട്ടാൻ എന്തായിരിക്കും ഒരു വഴി എന്താണ് ഞാൻ ആരെയാണ് കാണേണ്ടത് ഞാൻ ഓഫീസിൽ കയറി ഇറങ്ങി ഇതുവരെ ശരിയായിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളും കൂടിയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നാൽ പോയി ഒന്നും കൂടി നോക്കാമായിരുന്നു ഇനി എനിക്ക് പോകാനുള്ള ഡേറ്റടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കി ഉള്ളു